മലയാളികളെവിടെ ചെന്നാലും അവർ അയാ അവരുടെ മലയാളികളെ തമ്മിൽ കണ്ട് പിടിക്കും കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടായിരുന്നു കർണാടകയിലൊരു ടോക്ക് നടക്കുന്നു അപ്പം എവിടെ ചെന്നാലും മലയാളികൾ ഒരൊറ്റ ചോദ്യമുള്ളൂ നാട്ടിലെവിടെയാണ് നാട്ടിലെവിടെയാന്നുള്ളൊരു ചോദ്യത്തോട് കൂടെ തന്നെ മലയാളികളെ തിരിച്ചറിയാൻ പറ്റും മലയാളി നമ്മളുടെ ഐഡൻറ്റിറ്റിയാണ് മലയാളത്തിൽ നമ്മൾ ആ മലയാള തനിമ നമ്മുടെ എപ്പോഴും ആ മനസ്സിലുണ്ടാവും അത് എത്രയൊക്കെ മറച്ച് വെക്കാൻ ശ്രമിച്ചാലും ഒരു മലയാളി എന്നുള്ളത് വളരെ അധികം പ്രധാനം പിന്നെ ഷോ കാണിക്കാൻ വേണ്ടിയും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു വലിയ ആളാണെന്ന് കാണിക്കാൻ വേണ്ടി എത്രയൊക്കെ മലയാളമറിയാം ആയിരുന്നിട്ടും മലയാളം പറയാതിരിക്കുന്നവരൊക്കെ ഇന്നിപ്പോൾ ധാരാളമായിട്ടുണ്ട് ഇന്ന് സി ബി എസ് ഇ പോലുള്ള അല്ലെങ്കിൽ ഇംഗ്ലീഷ് മീഡിയം പോലുള്ള സ്കൂൾടെയൊക്കെ വളർച്ചയോട് കൂടെ നമ്മളിപ്പം പിള്ളേർക്ക് പോലും മലയാളം പറയാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്കവർ മാറിയിരിക്കയാണ് ആ മലയാളിയാണെന്ന് പറഞ്ഞാലും മലയാളത്തിൻ്റെ ഒരു വാക്ക് പറയാനോ എഴുതാനോ അല്ലെങ്കിൽ ആ ആൾക്കാരുടെ മുമ്പിൽ നിൽക്കാനോ ഇന്നൊക്കെ ഒത്തിരി അധികം സ്ട്രഗിള് ചെയ്യുന്ന പിള്ളേരെ നമുക്ക് കാണാൻ സാധിക്കും ശരിയാണ് മലയാളത്തിനതിൻറ്റേതായ ലിമിറ്റേഷൻസുണ്ട് ആ മലയാളമെന്നുള്ള ഭാഷ ആ മലയാളികൾ നമ്മൾ വേറൊരു ഭാഷ പഠിക്കാൻ വേണ്ടി നമ്മളെത്ര ശ്രമിച്ചാലും പറഞ്ഞ് കേട്ടിട്ടില്ലേ ഒരു മലയാളി എ എവിടെ കൊണ്ട് വിട്ടാലും ഹാ അവനതിന് ആ മറ്റ് ഭാഷകൾ പഠിക്കില്ല മറിച്ച് നമ്മുടെ ഭാഷ മലയാള ഭാഷ മറ്റുള്ളവരെ എങ്ങനെയെങ്കിലും പഠിപ്പിച്ചെടുത്ത് അവൻ്റെ കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളും അവൻ നടത്തിക്കൊണ്ട് പോവും